ഹലോ ക്യാബ് ഏജൻസി അല്ലേ ഞാനേ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ അവിടെ ഒരു പിന്നെ കേബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡേറ്റാ ഡേറ്റ് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ചൊവ്വാഴ്ചയാണ് കേബ് വന്നത് നമുക്ക് നമ്മുടെ അടുത്തേക്ക് മോണിംഗ് ആയിരുന്നു അതൊരു എട്ടര ആകുമ്പോൾ ആയിരുന്നു അപ്പം ആ കേബ് ഏതാണെന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ടെനിക്ക് ഒന്നു പറഞ്ഞു തരുമോ ആ ഒരു ചേട്ടനാണ് അപ്പം നമുക്ക് പേരും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം കുറെ ക്യാബുള്ളതു കൊണ്ട് നമുക്കങ്ങനെ ചോദിക്കാനും പറ്റില്ല അപ്പം ആ ഡേറ്റിലുള്ളത് ഒന്ന് നോക്കുമോ കാരണം എൻ്റെ വാലറ്റൊക്കെ അതിൽ അതായത് ബാഗ് വണ്ടിയിൽ വെച്ചു മറന്നു പോയി അപ്പോൾ പിന്നെയെന്നു വെച്ചിട്ട് അതിലാണ് എൻ്റെ ആധാർ ഐഡൻറ്റിറ്റി കാർഡ് അതുപോലെ ലൈസൻസ് എല്ലാ കാര്യങ്ങൾ ഞാൻ എനിക്ക് അത്യാവശ്യമുള്ളതായതെന്റെ എല്ലാ കാര്യങ്ങളും അതിലാണ് ഉള്ളത് അപ്പം നിങ്ങൾ അതൊന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ചേട്ടനോടൊന്ന് ചോദിക്കുകയാണെങ്കിൽ ഉപകാരമായിരുന്നു കാരണം എൻ്റെ അത്രയും സാധനങ്ങൾ എല്ലാം ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എല്ലാം ഒറിജിനലാണ് രേഖകളൊക്കെ അതൊന്നു നോക്കിയിട്ട് പറയുമോ ആ ഓക്കെ ഓക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി